പ്രമേഹത്തെപ്പറ്റി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി നാട്ടു വൈദ്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും എല്ലാമൊന്നും ചെയ്യാത്തതൊന്നുമില്ല എല്ലാവരുമിപ്പോൾ ചെയ്യുന്ന പണിയിച്ചാൽ എളുപ്പന്നങ്ങോട്ടെന്നു കടയിൽ ചെന്നിട്ട് അതിനുള്ള ഇൻസുലിനുണ്ട് അതു വാങ്ങിച്ചു കുത്തിവെക്കുക പിന്നെ ഗുളികകളുണ്ട് അതു വാങ്ങിച്ചു കഴിക്കുക ദിവസം ഓരോ ഗുളിക കഴിക്കുക ഇൻസുലിനെടുക്കുക ഇതൊക്കെ ചെയ്യും പിന്നെ ആഹാര സാധനങ്ങളൊക്കെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒത്തിരി പ്രശ്നങ്ങളൊഴിവായിക്കിട്ടും പിന്നെ ആഹാരം നിയന്ത്രിക്കുകയാണ് മെയിനായിട്ടു വേണ്ടത് ആഹാരം നിയന്ത്രിക്കുകയെന്നു പറയുമ്പം നമ്മൾ വലിച്ചു വാരിയൊന്നും തിന്നാതിരിക്കുക എന്നും ഇതു നമ്മൾ നേരത്തേ രണ്ട് ഒരു പ്ലേറ്റും ഒന്നര പ്ലേറ്റും ചോറുണ്ട കാലത്ത് ഇപ്പോൾ കഴിക്കുമ്പം ഒരു തവി ചോറിൽ നിർത്തണം അതിൻ്റെ കൂടെ കറികളൊക്കെ ഇഷ്ടം പോലെ വെജിറ്റബിൾ കറികളും ഒക്കെ ഇഷ്ടം പോലെ ചേർത്ത് എല്ലാം കഴിക്കണം ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുകയാണേൽ അതിനു കുഴപ്പമൊന്നുമില്ല അതൊക്കെ കഴിക്കുമ്പോൾ ഓരോന്നും മുറിയും ഒക്കെയായിട്ട് അങ്ങനെ കഴിച്ചാൽ മതി അല്ലാണ്ട് ഒത്തിരിയൊന്നും കഴിക്കരുത് ഒത്തിരി കഴിച്ച് കഴിഞ്ഞാലതൊക്കെ പ്രശ്നങ്ങളാകും അതിന് ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഓരോ കുറച്ച് ഇത് ഇപ്പം പഴം കഴിക്കുക പഴം വെച്ചാൽ രണ്ടു മൂന്നു പഴവൊന്നും കഴിക്കല്ലെ ഒരു പഴമൊക്കെ കഴിച്ച് അങ്ങനെ മുന്നോട്ടു പൂവാ എന്നാൽ എടക്കീ ആപ്പിളോ ഓറഞ്ചോ മുന്തിരിങ്ങയോ ഒക്കെ എല്ലാം കഴിക്കാം എല്ലാം കുറച്ചേ ആകാവൂ കൂടുതലായിട്ടൊന്നും കഴിക്കരുത് അതാണ് നോക്കേണ്ടത് എല്ലാം കൂടുതലായിട്ടു കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമുള്ളതാകും ഒത്തിരി കൂടുതലായിട്ടു കഴിക്കാണ്ട് ഓരോന്നായിട്ടു മാത്രം കഴിക്കുക പിന്നെ നിയന്ത്രിക്കുക ഭക്ഷണപദാർത്ഥങ്ങൾ നിയന്ത്രിക്കുക നാട്ടു വൈദ്യങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട് എല്ലാവരും അതൊക്കെ ഉപയോഗിക്കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സമയത്തിനും കാലത്തിനും കഴിക്കുകയെന്നുള്ളതാണ് വേറൊരു കാര്യം എല്ലാം സമയങ്ങൾക്കു മാത്രം സമയത്തിനു മാത്രം കഴിക്കണം സമയമില്ലാത്ത സമയത്തു കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും അങ്ങനെ അതു പാടില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഒത്തിരി നാട്ടു വൈദ്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട് പിന്നെ നമ്മുടെ ഈ ആര്യ വേപ്പിൻ്റെ ഇല പറിച്ചു തിന്നു കഴിഞ്ഞാൽ ഷുഗർ കുറയും പിന്നെ ഉലുവ കാട്ടുലുവ അതു ചവച്ചരച്ചു തിന്നാൽ ഷുഗർ കുറയും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഐറ്റങ്ങളുണ്ട് അതൊന്നും എല്ലാവരുമൊന്നും ചെയ്യത്തില്ല എല്ലാവരുമിപ്പം ഇംഗ്ലീഷ് മരുന്നിലാണ് ആശ്രയിച്ചിരിക്കുന്നത് പിന്നെ ആഹാരം നിയന്ത്രിക്കുക ഇതൊക്കെയാണ് എല്ലാവരുമിപ്പം ചെയ്തു കൊണ്ടിരിക്കുന്നത് ആ ഏതായാലും ആ രീതിയിലൊക്കെ കുറേ മുന്നോട്ടു പോകും അങ്ങനെ മുന്നോട്ടു പോകുന്നുണ്ട് വേറെ ദോഷങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും നല്ലയിതായിട്ടിങ്ങനെ പോകും എന്നു പറഞ്ഞാൽ മതി അങ്ങനെ പിന്നെ പിന്നെ ഒന്നും ഇതിനെ പറ്റിയൊന്നും നിങ്ങളുടെ ഗ്രാമപ്രദേശത്തിലെ നാട്ടു വൈദ്യം ഇതൊക്കെ നാട്ടു വൈദ്യങ്ങളെന്നു പറയുന്നത് ഒത്തിരി ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാട്ടു വൈദ്യങ്ങളിൽ പെടുന്നതും കൂടെയാണ് എല്ലാം നോക്കിയും കണ്ടും ചെയ്തവർക്കൊക്കെ അതിൻറ്റേതായിട്ടുള്ള പിന്നെ ഈ രോഗം വന്നു കഴിയുമ്പം കാല് വേദന കൈയ്ക്കു വേദന മുട്ടു വേദന ഇങ്ങനെയൊക്കെയുണ്ടാകും അതിനുള്ള കുഴമ്പിട്ടു തിരുമ്മുക സമയത്തിനു കുളിക്കുക കഴിക്കുക ഇതൊക്കെ ചെയ്യുമ്പം തന്നെ ഒത്തിരി മാറ്റങ്ങളുണ്ടാകും ഇതാണ് ഇതിൽക്കൂടി നമുക്കു മനസ്സിലാക്കാൻ പറ്റിയത് അതേ ഉള്ളു